നമ്മുടെ പ്രദേശ ആശുപത്രികൾ മാത്രം നന്നായി വളരുന്നുണ്ട് കൂടാതെ രോഗികളും ആശുപത്രി കൊൻ ആശുപത്രികളിൽ പോയാൽ ഇപ്പോൾ നല്ല വൃത്തിയാണ് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് വയനാട്ടിലിപ്പോൾ പുതുതായി മെഡിക്കൽ കോളേജുണ്ടാക്കി കാലങ്ങൾ കുറേ നമ്മൾ സമരം ചെയ്തും മറ്റും പല കാര്യങ്ങൾ ചെയ്തും മെഡിക്കൽ കോളേജ് എന്നത് യാഥാർത്ഥ്യമായത് ഈ വർഷമാണ് കൂടാതെ നമ്മുടെ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആശുപത്രികൾ

മറ്റ് പ്രൈവറ്റ് ആശുപത്രിയെ പോലെത്തന്നെ വളരുന്നുണ്ട് അവിടെ ചികിത്സ ലഭിക്കുന്നുണ്ട് ഡോക്ടർമാരുണ്ട് രാത്രികാലങ്ങളിൽ പണ്ട് രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ലായിരുന്നു ചികിത്സ ലഭിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് പുതിയ ടെസ്റ്റും മറ്റുകാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ സുഖകരമായിത്തന്നെ നടക്കുന്നുണ്ട്